ഫാദർ അല്ലേ ആ അത് പള്ളിയിലെ മോളെ കല്യാണാവശ്യത്തിനാണേ വിളിക്കുന്നത് പിന്നെ എന്തെല്ലാം കൊണ്ടുവരണം പള്ളി ക കല്യാണത്തിന് കല്യാണം സെപ്റ്റംബറിൽ സെപ്റ്റംബറിൽ അവൾ പ്ലസ് ടു വരെ പഠിച്ചിട്ടുണ്ട് ആ ഹാ ഹാ ആ അടുത്ത ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ആ ആ ആ ഹാ മ്

ആ ആ ഹാ നിർബന്ധമായിട്ടും അതിന് പോവണം അല്ലേ ഓ ഇല്ല കാര്യമായിട്ടൊന്നും കൊടുക്കാനില്ല ഏകദേശം കൊടുത്ത് തീർത്തതാണ് ഇനി ചെറിയ ചില്ലറ പൈസ എന്തെങ്കിലും ഉണ്ടാവും ആ ഹാ ആ

ആ ആ ആ എന്താണ് അവിടെ കല്യാണ ഓ ചെർ ആ ചെറുക്കൻറെ അവിടെ അത് സെപ്റ്റംബർ അത് ഒക്ടോബറിലാവും ഒത്തു കല്യാണം കഴിയണമല്ലോ മ് മ് ആ അപ്പം അത് ഈ ഒത്ത് കല്യാണത്തിന് ഞങ്ങൾ പൈസ എന്തെങ്കിലും കൊടുക്കേണ്ടി വരുമോ അവിടെ പള്ളിയിൽ ആ ആ മോതിരം ആ ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് മ് ആ മ് ആ ആ ആ ആ അതെ അതെ അതെ ആ ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ